ഇത് ബാങ്ക് മാനേജർ അല്ലേ സാറേ ഇത് ഞാൻ വിളിക്കുന്നതേ എനിക്കൊരു ഹലോ സാറേ എനിക്കൊരു ബാങ്കിലെ ഒന്ന് ഒരു വിദ്യാഭ്യാസ ലോണിൻ്റെ ആവശ്യത്തിന് ആയിരുന്നു എൻറെ കൊച്ചിന് വേണ്ടിയിട്ടേ അപ്പം അതിന് എനിക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ വരെ തരാൻ സാധിക്കുമായിരിക്കുമോ അതിന് ആ എനിക്ക് ഒരഞ്ച് അഞ്ചര ലക്ഷം രൂപ മതി അപ്പം അതിന് ഞാൻ യൂറോപ്പിലോട്ട് സാറേ അതിന് ഞാൻ അത് പഠിത്തത്തിനായിട്ടാണ് സാറേ അതിന് എന്ത് ഒക്കെയാണ് പേപ്പറുകൾ നമ്മൾ കൊണ്ടുവരേണ്ടത് അതായത് വസ്തുവിൻ്റെ വല്ല കാര്യങ്ങളോ അങ്ങനെ വല്ലതും വയ്ക്കണോ അത് അല്ലാതെ നമുക്ക് ലോൺ കിട്ടുമോ

ആ എങ്കിൽ വലിയ കാര്യം

പാൻ കാർഡ് വേണം അല്ലേ അപ്പം എനിക്ക് പാൻ കാർഡ് ഇല്ല അപ്പം സാറേ അത് എപ്പം എവിടെ ചെന്നാൽ എടുക്കാൻ പറ്റും ആ അത് എവിടെയാണ് അക്ഷയയിൽ പോയാൽ മതിയോ മതി അല്ലേ അപ്പം അത് എത്ര ദിവസത്തിനകം അത് കൊണ്ട് തരേണ്ടി വരും

ആ അപ്പം ഞാൻ നാളെ വന്ന് ബാങ്കിൽ വന്ന് ആപ്ലിക്കേഷൻ ആദ്യം വാങ്ങിക്കാം അല്ലേ കുട്ടിയെ കൊണ്ടുവരണോ ക് കുട്ടിയുടെ സർട്ടിഫിക്കറ്റോ മറ്റ് കാര്യങ്ങളോ വല്ലതും വേണോ ആ എങ്കിൽ ശരി മാഡം ഞാൻ നാളെ വരാം